ആ അപ്പോൾ ഞാൻ ഇപ്പോൾ വിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഷോപ്പിലാണെങ്കിൽ കാർട്ടിൽ ഒരു പൂതിയ ഗെയിമിങ്ങിൻ്റെ കൺസോൾട്ട് ആഡ് ആക്കിയിട്ടുണ്ടെന്ന് ഒരു ഇത് ന്യൂസ് പോലെ കണ്ടു അപ്പം എൻ്റെ ഷിപ്പിംഗ് ചാർജ് ആണെ കൊടുത്തിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കാനായിട്ട് വിളിച്ചതാണ് അപ്പം അതിന് എന്തൊക്കെ ആയിരിക്കും വേണ്ടതെന്ന് ഒന്ന് പറയാമോ ആ പ്രമോ കോഡ് ഒക്കെ ഞാൻ നൽകിയ തന്നേ ആയിരുന്നു ഓൾറെഡി തന്ന ആയിരുന്നു സൗജന്യ ഷിപ്പിങ്ങന്നാണ് പറഞ്ഞത് എൻ്റെ അതൊന്ന് ഷിപ്പിംഗ് ചെയ്തിട്ടുണ്ടോ ഒന്ന് നോക്കിയാൽ മതി ആ അതെ ഞാനൊരു അറിയിപ്പ് ഇതേ പോലെ കണ്ടായിരുന്നു അത് കൊണ്ട് പറഞ്ഞതാണ് അത് ആ അത് എങ്ങനെയാണ് ഒന്ന് പറയാമോ അത് ചെയ്യാനുള്ളത് നമ്മൾ ആ ആധാർ കാർഡ് ഒക്കെ വേണോ അതിന്